ഏറ്റവും നല്ല രീതിയിൽ സാധാരണക്കാരിൽ എത്തിക്കുന്ന എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു മാർഗ്ഗമാണ് അംഗൻവാടികൾ അതില് ഗർഭിണികൾക്കുണ്ട് കുഞ്ഞുമക്കൾക്കുണ്ട് കൗമാര പ്രായക്കാർക്കുണ്ട് എല്ലാവർക്കും പിന്നെ പോഷക ഗുണങ്ങളുള്ള ആഹാരങ്ങൾ ആഹാര സാധനങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതിനു വേണ്ട പോഷക ഗുണങ്ങളുള്ള ഭക്ഷണങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട് ആറു മാസം തൊട്ട് മൂന്ന് വയസ്സ് വരെ കുട്ടികൾക്ക് എല്ലാ പോഷക ഗുണങ്ങളും കൂടിയ അമൃതം പൊടി ആറ് പാക്കറ്റ് വീതം വെച്ച് എല്ലാ അംഗൻവാടികളിൽ നിന്നും കിട്ടുന്നുണ്ട് അതേപോലെത്തന്നെ ഗർഭിണിയായ ഒരു സ്ത്രീയ്ക്ക് പൊടിയെ പിന്നെ നുറുക്ക് ഗോതമ്പ് എണ്ണ കടല ഉഴുന്ന് ഉലുവ അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട് ചെറുപയർ ഒക്കെ കിട്ടുന്നുണ്ട് ഇത് ഒരു കണക്കിന് നോക്കുമ്പോൾ എല്ലാ ഇതിലും നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് എല്ലാവർക്കും നല്ല ഫുഡ് നല്ല ഫുഡ് അല്ല അതില് പോഷക ഗുണങ്ങളുള്ള ഫുഡ് എല്ലാവരിലും എത്തിക്കാൻ സാധാരണക്കാരിൽ എത്തി അവരത് കഴിക്കാൻ അംഗൻവാടിക്കാർക്ക് അംഗൻവാടിയിലെ ടീച്ചർ അതിന് മേൽനോട്ടം വഹിച്ച് എല്ലാവരിലും എത്തിയ്ക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ രോഗികൾക്കായാലും എല്ലാ ശ്രദ്ധ കേന്ദ്രികരിച്ച് ആശാവർക്കർമാർ വന്ന് എല്ലാം നോക്കി എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട് അതൊക്കെ എന്താ പറയുക കേരളത്തിൽ അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യുന്നുണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തില്